ഈ ഗ്രാമീണ പ്രദേശത്തെ പാരമ്പര്യ സവിശേഷതകളെ പ്രചരിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും പരമ്പരാഗത കളികൾ വളരെ ഗുണമുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് നമ്മുടെ ഗ്രാമീണ പ്രദേശത്തെ അവിടുത്തെ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരു പരമ്പരാഗതമായ കായികങ്ങൾ നടത്തുന്നത് അവരുടെ ജനങ്ങൾ തമ്മിലുള്ള ഒരു ആത്മബന്ധവും അവർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിലും വഴങ്ങുന്നു ഈ വിനോദങ്ങളിലൂടെ അവരുടെ സന്തോഷവും സംതൃപ്തിയും എല്ലാം അവർക്ക് ലഭിക്കുന്നു ഈ ഈ കളികൾ നടത്തുന്നത് മൂലം എല്ലാവരും തമ്മിലുള്ള ഒരു ആത്മബന്ധവും അവർ തമ്മിലുള്ള ഒരു സൗഹൃദവും നിലനിന്ന് പോകുന്നു